ബൈക്കിങ്ങിൽ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് എന്ന അതായത് ഒരു എയർ പമ്പടിക്കാൻ ഒരു പമ്പും പിന്നെ ഒരു രണ്ട് ഒരു ടൂൾ കിറ്റ് കിട്ടും അതായത് അതിലെല്ലാം നമുക്ക് ആവിശ്യമുള്ള സ്പാനെറുകളും അതിൽ ലഭ്യമാക്കും യാത്രകളിലുണ്ടാവുന്ന മെക്കാനിക്ക് പ്രശ്നങ്ങൾ നമുക്ക് പ്രധാനമായും തന്ന താനെ കൈകാര്യം ചെയ്യുന്നായിരിക്കും നല്ലത് കാരണം പ്രേദേശികം നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുന്ന നമുക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ അവിടത്ത മെക്കാനിക്കുക ൾ നമ്മളോട് അധികമായ പണം ഈടാക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് കുറച്ച് മെക്കാനിക്കൽ പണികൾ പഠിച്ചിട്ട് വേണം നമ്മൾ ദൂരത്ത് ദൂര ദൂര യാത്രകൾ ചെയ്യാനായിട്ട് പ്രധാനമായും യാത്ര ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഈ ടയറിലെ കാറ്റ് കുറയുന്നതും നമ്മുടെ ബ്രേക്ക് പാഡ് തീരുന്നത് അതാണ് പ്രധാനമായ പ്രശ്നങ്ങൾ ഈ രണ്ട് പ്രശ്നങ്ങളും നമുക്ക് തന്നത്താൻ ചെയ്യാവുന്നതേ ഉള്ളു അത് ബ്രേക്ക് പാഡ് പോവുന്നതിന് മുമ്പ് നമുക്ക് രണ്ടെണ്ണം മേടിച്ച് സ്പെയർ മേടിച്ച് വയ്ക്കാനും അതായത് നമ്മൾ എയർ എയർ പമ്പ് കയ്യിൽ എടുക്കുന്നതിലൂടെ ഈ കാറ്റടിക്കാൻ വർക്ക് ഷോപ്പിൽ കയറുന്ന സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും അതായത് ആ പൈസയും നമുക്ക് ലാഭിക്കാം പിന്നെ ഞാൻ യാത്രക്കിടയിൽ പോയപ്പോൾ എനിക്ക് തകരാർ സംഭവിച്ചിരുന്നു അത് എൻ്റെ ബ്രേക്ക് പാഡിനായിരുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാരനൊരു മെക്കാനിക്ക് അതായത് കുറച്ച് പണി അറിയാവുന്നതു കൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു അവൻ അപ്പോൾ തന്നെ അധികം പൈസ ചിലവ് പൈസ ചിലവും പണച്ചെലവും പിന്നെ എന്ന സമയച്ചെലവും ഇല്ലാതെ രണ്ട് മിനിറ്റിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും ശരിയാക്കി തരികയും ചെയ്യ്തു അതേ സമയം ഞാൻ വർക്ക്ഷോപ്പിൽ കയറ്റുകയാണെങ്കിൽ ഞങ്ങളുട സമയവും നഷ്ടപ്പെട്ടേനെ വളരെ അധികം കാശും നഷ്ടപ്പെട്ടേനെ അത് ഒഴിവാക്കുന്നതിനായി ഞാൻ എപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട്